ഹലോ വാട്ടർ അതോറിറ്റിയല്ലേ വാട്ടർ വാട്ടർ അതോറിറ്റി അല്ലേ ഞാൻ അതെ ഞാൻ ഈ കോട്ടയം ഇത്തിത്താനം എന്ന സ്ഥലത്തുനിന്നായിരുന്നേ ഞങ്ങൾ പിന്നെ കുടിവെള്ളത്തിനായിട്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റി വെള്ളമാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ വെള്ളത്തിന് ഒരു ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഭയങ്കര മണം ആണോ എന്തോ കളറ് വ്യത്യാസം അങ്ങനെ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട്

അതെ അതെ അതെ

ആ പക്ഷെ എന്തായാലും സാറേ ഞങ്ങൾക്ക് വേറെ കുടിവെള്ളത്തിനായിട്ട് വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല കാരണം ഞങ്ങൾക്ക് കിണറ് കുഴിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഇച്ചിരി പൊക്ക സ്ഥലം പാറയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അപ്പം ഈ ഒരു വെള്ളത്തിനെയാണ് ജനജീവൻ്റെ ഈ വെള്ളത്തെയാ ഞങ്ങൾ ആശ്രയിച്ച് കഴിയുന്നത് അപ്പം അത് തന്നെ അല്ല ഇടക്ക് ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വെള്ളം ഇല്ലാതെ വരും അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ വെള്ളം ഇറക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്

പിന്നെ എനിക്ക് തോന്നുന്നത് കൂടുതലും ആ കൂടുതലും നമുക്ക് കളറ് പോവും വെള്ളത്തിന് കളറില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ അല്ല മറ്റുള്ളവരും ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് വെള്ളത്തിന് കാരണം നമ്മൾ കറക്റ്റ് വെള്ളത്തിൻ്റെ പൈസ അടക്കുന്നുണ്ട് ഏഹ് അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് ഇനിയും പുറത്തുനിന്നിട്ട് വില കൊടുത്തിട്ട് വെള്ളം വേടിക്കാനുള്ള കാര്യങ്ങൾ അത് ഒക്കെ വലിയ ബുദ്ധിമുട്ടായിട്ടാ വരുന്നത് അപ്പോൾ ആ ആ ഓ പിന്നെ ആ പിന്നെ എന്താ വച്ചാൽ എന്തോ ആ അപ്പം പിന്നെ അത് തന്നെ അല്ല ഇപ്പം എല്ലാവരും സാറേ ഇപ്പം ഞാൻ പറയാവേ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം കുറച്ച് പേരൊക്കെ വേറെ ഒക്കെ മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ മറ്റേ ആ ജനജീവൻ്റെ വെള്ളം വരുന്നതുകൊണ്ട് എങ്ങനെയും കുറച്ച് പേര് പോകുന്നുണ്ട് അപ്പോൾ ഈ ജനജീവൻ്റെ വെള്ളം ഞങ്ങൾക്ക് എന്തോ ആ ഫുൾ ഫില്ലിങ്ങാ ആ അല്ല അപ്പം ഞങ്ങൾ കുന്നിൻ്റെ മേളിലായിട്ടാ ഞങ്ങളുടെ അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഓൾറെഡി ആ വെള്ളം അങ്ങോട്ട് കയറി വരാൻ ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ ഞങ്ങളിതാ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ പിന്നെ കുറച്ച് പേരുണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാം അപ്പം എത്രയും പെട്ടെന്ന് സാർ ആ തീരുമാനം ഒന്ന് എടുക്കണം ആ ഓക്കെ ആ ശരി ഓക്കെ സാറേ ഓക്കെ ഓക്കെ താങ്ക് യൂ